എൻ്റെ പിതാവ് എസ് എസ് എൽ സി യും മാതാവ് പ്രീഡിഗ്രിയുമാണ് അവരുടെ പഠന യോഗ്യത പിതാവിന് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയഞ്ചാം ക്ഷമിക്കണം നാല്പതാം വയസ്സിലാണ് അദ്ദേഹം എസ് എസ് എൽ സി എഴുതി പാസ്സാകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളും പഠനത്തോടുള്ള ആ പഠനത്തിനോട് പഠിത്തം പുരോഗമിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും വീട്ടിലെ അവസ്ഥ മോശമായതിനെ തുടർന്ന് പഠനം പതുക്കെ പകുതി പകുതിക്കൽ വെച്ച് നിർത്തേണ്ട ഒരു ഘട്ടമായിരുന്നു ഉമ്മ അതുപോലെ എൻ്റെ മാതാവ് പ്രീഡിഗ്രി പാസ് ആണ് പക്ഷേ പിന്നീട് മുകളിലോട്ട് പഠിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിനും കിട്ടിയില്ല

അന്നത്തെ സിറ്റുവേഷൻ അവസരങ്ങളും ഒക്കെ ഭയങ്കര മോശം സ്ഥിതിയായിരുന്നു പക്ഷേ ഇന്ന് അതുപോലെയുള്ള ഒരു അവസരത്തിൽ അല്ല നാം ഉള്ളത് പണ്ടത്തെ എല്ലാം അപേക്ഷിച്ച് ഇന്ന് ഒരുപാട് മുന്നേറിയിട്ടുണ്ട് പഠനത്തിൻ്റെ കാര്യത്തില്